വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് മറ്റ് എല്ലായിടങ്ങളിലും പോകാറുണ്ട് കാരണം സ്കോളർഷിപ്പ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോകാറുണ്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ നല്ലതായി പഠിക്കുന്ന പിള്ളേരെ ഒക്കെ കൊണ്ട് പോകാറുണ്ട് സയൻസ് എക്സിബിഷനും മാത്സ് എക്സിബിഷനും സോഷ്യൽ എക്സിബിഷനും തുടങ്ങി അങ്ങനെയുള്ള പഠന രീതിയിലുള്ള എല്ലാ മേഖലയിലേക്കും പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് പോകാറുണ്ട് അതവരുടെ കഴിവിനെ കൂടുതലും വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് പഠിത്തത്തിലുള്ള പല പല കാര്യങ്ങളും പല രീതിയിലുള്ള കുട്ടികളും അന്ന് അവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികളിലുള്ള അറിവ് കൂടെ അവർക്ക് കൊടുക്കുകയും അവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മൾ മേടിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ പല പല ഇടങ്ങളിലും സ്കൂളുകളിൽ തന്നെ കൊണ്ട് പോകാറുണ്ട് പിന്നെ പഠനയാത്രകളിലൊക്കെ കൊണ്ട് പോകും അപ്പം അതിനു ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും കൂടുതൽ അറിവ് നേടുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ സ്കോളർഷിപ്പുകൾ കിട്ടുകയും മറ്റ് ഇടങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരങ്ങളും അവർക്ക് കിട്ടാറുണ്ട് പരീക്ഷ കഴിഞ്ഞാലും നല്ല മാർക്കോടെ പാസ് ആകുന്ന കുട്ടികൾക്ക് അപ്പം തന്നെ അഡ്മിഷൻ എടുക്കാനും പലയിടങ്ങളിൽ ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോകാറുണ്ട് ഇവിടങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന പിള്ളേർക്ക് ഫീസ് ഇല്ലാതെ നല്ല പോലെ പരിക്ഷ എഴുതി കയറുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അവരുടെ ലൈഫ് അങ്ങനെ തന്നെ പോയെക്കും പഠിത്തത്തിൽ മുന്നിലായതിനാൽ അവരെ ജീവിതത്തിലേക്കുള്ള മുന്നേറ്റവും എന്ന് പറയുന്നത് പടികളിൽ തുറന്നു കൊണ്ട് തന്നെയായിരിക്കും പഠിക്കാത്ത കുട്ടികൾക്കാണ് നമ്മൾ പൈസ ഒക്കെ മുടക്കി ചെയ്യേണ്ടതായിരുന്നത് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം സർക്കാരിൻ്റെ ചിലവിൽ തന്നെ എന്തും പഠിക്കാനുള്ള അവസരങ്ങളും പല പല ടെസ്റ്റുകളും ഒക്കെ ഉണ്ട് ഇപ്പം മെഡിസിൻ പഠിക്കാൻ തന്നെയാണെങ്കിൽ എൻട്രൻസ് എൻട്രൻസ് ഒക്കെ ഉണ്ട് എൻചിനീറിംഗ് ഒക്കെ ആണെങ്കിലും അതുപോലെ എൻട്രൻസ് എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഉന്നതപഠനത്തിന് മറ്റെവിടെ പോയാലും അതവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും നല്ലതാണ് കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ പഠിക്കാത്ത കുട്ടികളെയും കൂടി ആവറേജ് സ്റ്റുഡൻസിനോടെ കൊണ്ടുപോകുകയാണ് അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും കാരണം പല നമ്മുടെ ആ ഒരു ചെറിയൊരു അറിവിനെ മറ്റൊരെടുത്ത് ചെല്ലുമ്പോൾ പല പല അറിവുകൾ നമ്മൾ കാണുമ്പോൾ ആ അറിവുകളെ ഗ്രഹിക്കാൻ നമ്മൾ ശ്രമിക്കും കാരണം അങ്ങനെയും നമ്മൾ പഠിക്കുന്ന കുട്ടികളുണ്ട് അതായത് എപ്പോഴും തോറ്റ് തോറ്റ് തോറ്റ് പഠിച്ച് പിള്ളേരുകൾ ഫൈനൽ എക്സാമ് ഒക്കെ ആകുമ്പം മൊത്തത്തിൽ പാസ് ആകുകയും നല്ല മാർക്ക് മേടിക്കുകയും ചെയ്യാറുണ്ട് ചില കുട്ടികൾ നല്ലപോലെ പഠിച്ച് കൊണ്ടേയിരിക്കും ചില സമയത്ത് തോൽവിയിലേക്ക് പോകാറുണ്ട് ഉണ്ട് കുട്ടികളിൽ പരമാവധി അവരെ ടീച്ചേഴ്സും വീട്ടുകാരും എല്ലാം ഒരേപോലെ നോക്കി അവരെ അവരുടെ പഠനത്തോടുള്ളൊരു അവരുടെ ആ അറിവിനെ അവർ മനസ്സിലാക്കി ആറിവില്ലായ്മയിൽ തിരുത്തി അവരെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ നമ്മൾ മാറ്റിയെടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഞാനിപ്പോൾ അങ്ങനെ പല കുട്ടികളും കാണാറുണ്ട് അവരുടെ ജീവിതം അങ്ങനെ പോക്കിയാൽ മാത്രമേ ഒരു മുന്നേറ്റം ഉണ്ടാകു